വീഡിയോ ഗെയിമുകളെ കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഞാൻ കളിച്ചിട്ടുള്ള വീഡിയോ ഗെയിമുകളെന്ന് പറയുന്നത് ടെമ്പിൾ റൺ സബ്വേ സർഫസ് ടോക്കിംങ്ങ് ടോം അതുപോലെത്തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ചില ഗെയിംസ് ഉണ്ട് പിന്നെ മിനി മിൽഷ്യ ഉണ്ട് ഇതുപോലെയുള്ള ഗെയിംസൊക്കെയാണ് ഞാൻ കളിച്ചിട്ടുള്ളത് അപ്പം ഇതിലോരോ ഗെയിംസിലും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് ഒന്ന് ഒരു സമയം വെറുതെയിരിക്കുന്നത് ടൈമിൽ കളിക്കാൻ നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഓരോ ലെവലും കഴിയുമ്പം ഹാപ്പിനെസ് ഉണ്ടാകും ഇങ്ങനെ കാൻഡി ക്രഷ് കളിച്ചിട്ടുണ്ട് ഇപ്പം ക്യാൻഡി ക്രഷിലൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു മൊമെൻ്റീലൂടെ തന്നെ നമുക്ക് ഒരു ജയം കിട്ടുമ്പോൾ ഒരു ഒരു സന്തോഷം ഉണ്ടാകും അതുപോലെ ടെമ്പിൾ റണ്ണ് സബ്വേ സർഫെന്നൊക്കെ പറയുമ്പം നമ്മൾ ആരെയോ ഓടി ജയിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ജയമെന്ന് പറയുന്ന സാധനം ഇപ്പം പരാജയമുണ്ടായാൽ പോലും ഓക്കെ അത്രയും കോയിൻസ് എടുത്തു അല്ലെങ്കിൽ അത്രയും ഇതെടുത്തു അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി അതൊക്കെ നമുക്ക് കാണുമ്പോൾ കുഞ്ഞിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉള്ള ഗെയിംസ് ആണ് പിന്നെ മിനി മിൽഷ്യ നമ്മൾ കുറേ പേരുടെ കൂടിയിരുന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ജയിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒളിച്ച് നിൽക്കുക പുതിയ തോക്ക് കിട്ടുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഗേമുകളൊക്കെ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം എന്നല്ല ഇഷ്ടം ആ ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അതൊക്കെയാണ് അതുപോലെ തന്നെ ചില ഗെയിംസിൽ നമുക്ക് ജയിക്കുന്ന സമയത്ത് റിവാർഡ്സ് കിട്ടുക ആ റിവാർഡ്സ് ഇരട്ടിക്കാനുള്ള ആഡ് കണ്ടാൽ റിവാർഡ്സ് ഇരട്ടിക്കുക അപ്പം അതൊക്കെ നമുക്ക് കുറച്ചും കൂടി സന്തോഷം തരുന്ന ടോക്കിംങ്ങ് ടോം എന്നൊക്കെ പറയുമ്പം നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുക തിരിച്ച് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് കേൾക്കാൻ രസമാണ് മനസ്സിന് ചിലപ്പോൾ ഒരു റിഫ്രഷ്നസ് കിട്ടാറുണ്ട് പിന്നെ ചിലപ്പം കളിക്കുന്ന സമയത്ത് നമുക്ക് രസം തോന്നാറുണ്ട് ചില ചില ചില